സാറെ ഞാൻ എൻ്റെ പേര് റീന ഞാൻ എൻ്റെ അഞ്ചാറ് മാസമായി ഞങ്ങൾ കറണ്ട് ബില്ല് അടച്ചതിൻ്റെ ഒരു ഒരു കോപ്പിയും അതിലൊരു സ്റ്റാമ്പ് ഒട്ടിച്ചൊരു ഇതായിട്ട് തരണമെനിക്ക് അത് ആവശ്യമാണ് അത് ഞാൻ എന്താ ചെയ്യണത് അത് സാറിൻ്റെ ഇവിടെ വന്നാൽ മതിയോ അവിടെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് അത് എനിക്ക് ആ പേപ്പറ് അത്യാവശ്യമാണ് അതുകൊണ്ടത് വേണ്ടതാണ് അത് ഞാൻ ഒരു മണിക്കൂർ വേണമെങ്കിൽ അര മണിക്കൂർ ഒരു മണിക്കൂർ വേണമെങ്കിൽ നിന്നുകൊളളാം നിൽക്കാതിരുന്നാൽ അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊന്നെടുത്ത് തരാമോ ഫാമിലി അഞ്ചാറ് മാസം കറണ്ട് ബില്ലടച്ചതിൻ്റെ ആ ഒരു പേപ്പറ് ഈ സ്റ്റാമ്പ് ഒട്ടിച്ചതിൻ്റെ ഒരു പേപ്പറെനിക്ക് തരണത് എനിക്കത്യാവശ്യമാണത് ഞാൻ ഞാൻ കുറച്ച് സമയം നിന്നാണെങ്കിലും ഞാൻ വാങ്ങിച്ചുകൊളളാം അത് എന്താ ചെയ്യേണ്ടത് എനിക്കത്യാവശ്യമാണ് അത്